എൻ്റെ മോളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ ആ പേരെൻസിൻ്റെ മീറ്റിങ്ങിൽ ഇങ്ങനെ പോ ഡാൻസ് പ്രോഗ്രാം വെച്ചു അപ്പോൾ ഞാനതിൽ പങ്കെടുത്തു അങ്ങനെ ഞങ്ങൾ നിരു തിരുവാതിരക്കളിയാണ് കളിച്ചത് പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി എല്ലാവരും ഒരെ പോലെത്തെ ഒരെ കളറിൽ ബ്ലൗസും അതേ പോലെ തന്നെ സെറ്റ് സെറ്റുമുണ്ടും ഒക്കെ ഉടുത്ത് വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തു ഒരു പത്ത് ദിവസത്തോട് അടുത്തു പ്രാക്ടിസിന് അങ്ങനെ പ്രാക്റ്റീസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് പറ്റി എല്ലാവരും ഇപ്പോൾ വിചാരിച്ചതിനെ കാട്ടിലും വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സ്റ്റേജിലത് പേർഫോം ചെയ്യാനായിട്ട് സാധിച്ചു എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം തന്നെ ആയിരുന്നു വളരെ എന്ന് വച്ചാൽ മനസ്സിൽ ഇപ്പോഴും അത് വളരെ നല്ല രീതിയിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കാര്യം തന്നെയാണത്